മറ്റ് ഭാഷകളും മറ്റ് സംസ്കാരങ്ങളും മലയാള ഭാഷയെ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട് പഴയ മലയാളം ഭാഷയെടുത്താൽ ആധുനിക തലമുറയ്ക്ക് അത് മലയാള ഭാഷയല്ല മറ്റൊരു ഭാഷയായിട്ട് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം അതിൻ്റെ വ്യാകരണവും അതിൻ്റെ ഭാഷാ ശുദ്ധിയും ഒന്നും

മലയാള ഭാഷയെ ശുദ്ധ ഭാഷയാക്കി മലയാളികളുടെ കൈകളിൽ എത്തിക്കേണ്ടത് ഇന്നിൻ്റെ ഒരു ആവശ്യകത തന്നെയാണ് മയാ മലയാള ഭാഷയിലെ പഴയകാല നോവലുകളും കവിതകളും ഒക്കെ വായിച്ചാൽ അതിൻ്റെ അകത്ത് മറ്റ് ഭാഷകളായ കന്നഡ സംസ്കൃതം ഉറുദു

നല്ല ഒരു സങ്കീർണ്ണമായ രീതിയിൽ തന്നെ കടന്ന് കയറി കൂടിയിട്ടുണ്ട് അത് എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്